എൻ്റെ ഇവിടെ എന്ന് പറയുമ്പം ഫുട്ബോൾ ക്രിക്കറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പിന്നേന്ന് പറയുമ്പം അങ്ങനെയുള്ള കാര്യങ്ങളാണ് മെയിൻ ആയിട്ടുള്ളത് ഇവിടെ ഒരു സ്കൂൾ ഉണ്ട് എൻ്റെ വീടിൻ്റെ രണ്ട് കിലോമീറ്റർ അപ്പുറം ഒരു സ്കൂൾ ഉണ്ട് ആ സ്കൂൾ എന്ന് പറയുമ്പം പണ്ടുകാലം തൊട്ട് കുറെ ചേട്ടായിമാര് ഇങ്ങനെ പോയി കളിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥലമാണ് ഐ മീൻ ഞാൻ ചെറുപ്പകാലത്തെ ഉണ്ടായിരുന്നപ്പം കുറെ പേര് ഇതിലെ ഇങ്ങനെ നടന്നുപോന്നൊതൊക്കെ കണ്ടിട്ടുണ്ട് ചിലപ്പം നമ്മുടെ കസിൻസിൻ്റെ കൂടെയൊക്കെ ഞാനും പോയിട്ടുണ്ട് കളിക്കാൻ കളിക്കാൻ പോയിട്ട് നമ്മൾ ഇങ്ങനെ നോക്കി നിൽക്കുവായിരുന് ഇവര് ഫുട്ബോളൊക്കെ കളിക്കുമ്പോൾ ഇങ്ങനെ വെറുതെ ഇങ്ങനെപോയി നോക്കി നിൽക്കുവായിരുന്ന് ഇപ്പൊന്ന് പറയുമ്പം നമ്മളും അവിടെ പോയി കളിക്കും ഇപ്പം നമ്മള് നമ്മള ഫ്രണ്ട്സിനെയും കസിൻസ് ഒക്കെ വരുമ്പം അവരെയും കൂട്ടിയിട്ട് അവിടെപ്പോയിട്ട് ഒന്നേല് ഫുട്ബോൾ കളിക്കും അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിക്കും അങ്ങനെ ഷട്ടില് അങ്ങനെത്തുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മള് കൂടുതലും കളിക്കുന്ന ഷട്ടിൽ എന്നൊക്കെ പറയുമ്പോള് വീട്ടിൽ തന്നെയായിരിക്കും ഈ ഫുട്ബോൾ അങ്ങനെയുള്ള കാര്യങ്ങള് കളിക്കാന് ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മള് നേരെ എന്താ ഇവിടെ സ്കൂൾ ഉണ്ട് അടുത്ത് അവിടെ ഞങ്ങള് ഇങ്ങനെ ഇപ്പം ഒരു ബൈക്ക് എടുത്ത് ഇങ്ങനെ ചില്ലടിച്ചു പോയി അവിടെ പോയി കളിച്ച് വിയർത്ത് കുളിച്ചൊക്കെ ആയിരിക്കും വരിക അതൊക്കെയാണ് ഒരു വൈബ് പിന്നെ ക്രിക്കറ്റ് ക്രിക്കറ്റ് കളിക്കാനും കുറേ ചേട്ടായിമാര് പോകുന്ന കാണാം ഞാൻ അങ്ങനെ ഓവർ പോയിട്ടില്ല എന്നാലും കുറെ വട്ടം പോയിട്ടുണ്ട് കസിൻസിന്റെ കൂടെ എൻറെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള ചേട്ടായിമാരെ അവരുടെ കൂടെയൊക്കെ ഞാൻ കുറെ വട്ടം പോയിട്ടുണ്ട്